ഞാൻ മണി പ്ലാൻ്റ് ആയിട്ടാണ് വള്ളിച്ചെടി ആയിട്ട് എനിക്ക് മണി പ്ലാൻ്റ് ആണുള്ളേ പിന്നെ വള്ളി റോസയുണ്ട് റെഡ് പൂക്കൾ ഉള്ള വള്ളി റോസകള് ഉണ്ട് പിന്നെ ഉള്ളത് കുറെ തരത്തിലുള്ള പിന്നെ ഹാങ്ങിംഗ് പ്ലാന്റുകള് ഉണ്ട് അതൊക്കെ വള്ളിചെടിയിൽ പെടും ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇങ്ങനെ തൂങ്ങി കിടക്കും നല്ല രസമായിരിക്കും അത് ചെറിയ ചെറിയ ഇല ഉള്ളത് ഉണ്ട് പച്ച ഇല ഉള്ളത് ഉണ്ട് പിന്നെ കടുംപച്ച ഉള്ളതുണ്ട് പിന്നേ ഗോള്ഡന് കളറുള്ളത് കറുപ്പുണ്ട് അങ്ങനെ ഉള്ളതും പിന്നെ ഉള്ളത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് പിന്നെ ഗോള്ഡന് കളറില് ഉണ്ട് പച്ചയും വെള്ളയും ചേർന്നത് ഉണ്ട് പച്ച മാത്രം ആയിട്ടുള്ളത് ഉണ്ട് അങ്ങനെ പല ഇത് പിന്നെ നമ്മുടെ ഈ ഇത് കണ്ടിട്ടുണ്ടോ മധുര കിഴങ്ങ് ഇല്ലേ മധുര കിഴങ്ങിന്റെ വള്ളി പോലെ ഉള്ളത് ഒക്കെയുണ്ട് രണ്ടു കളറില് അങ്ങനെ വരുന്നതൊക്കെയാണ് അങ്ങനെ ഉള്ളതാണ് ഞാന് വളര്ത്തുന്ന വള്ളിച്ചെടികള്